എൻ്റെ രണ്ടാമത്തെ പ്രൊഡക്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഹെയർ ജെല്ലാണ് അപ്പോൾ ഹെയർ ജെല്ല് നമ്മള് കൂടുതലായിട്ട് യൂസെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മുടിയൊക്കെ നല്ല രീതിയില് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഹെയർ ജെല്ലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മളുടെ തലയ്ക്ക് നല്ല രീതിയിലുള്ള ദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഹെയർ ജെല്ല് യൂസെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മുടി കൊഴിയുക താരൻ കൂടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഭയങ്കര നമ്മുടെ തല വേദന എടുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഈ ഹെയർ ജെല്ലിലുള്ള കാര്യങ്ങൾ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഒരു നെഗറ്റീവൊക്കെയാണ് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞില്ല പല തരത്തിലുള്ള ഹെയർ ജെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും വാക്സുണ്ട് ഇപ്പോൾ സാധാ ജെല്ല് കാര്യങ്ങളൊക്കെയുണ്ട് ഇതൊക്കേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നല്ല രീതിയില് കെമിക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പം നല്ല രീതിയില് നമ്മുടെ തലയ്ക്ക് ബാധിക്കും തല വേദന എടുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും അതൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നവും കാര്യങ്ങളുമൊക്കെ നമ്മുടെ തലയിലാണെങ്കിലും നമ്മുടെ മുടി മുടിയിലാണെങ്കിലും പല രീതിയില് ബാധിക്കും അപ്പം അതൊക്കെ ആണ് മെയിനായിട്ട് എന്തേലും നെഗറ്റീവെന്ന് വേണമെങ്കിൽ പറയാം